ഞാൻ ഈ ഈ ഇടയ്ക്കായിട്ട് ഒരു ഡൈനിങ്ങ് ടേബിൾ വാങ്ങിച്ചു നമ്മളെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ടാണ് മേടിച്ചത് നല്ലൊരു ഡൈനിങ്ങ് ടേബിളായിരുന്നു ഗ്ലാസിന്റെ ആണ് മേടിച്ചത് മരത്തിന്റെ ഫ്രെയിമിൽ ഗ്ലാസിന്റെ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ഇതായിരുന്നു ഇരുപതിനായിരം രൂപയായി ഇതിന് ഇതിൻ്റെ ഒപ്പം ഒരു ആറ് ചെയറും അവർ ഫ്രീ ആയിട്ട് തന്നു നല്ലൊരു ചെയറായിരുന്നു ആറെണ്ണവും മരത്തിന്റെ തന്നെ ചെയർ അതിൽ കുഷ്യനൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട് അപ്പോൾ ആറു പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഡൈനിങ്ങ് ടേബിളാണത് കംഫർട്ടബിൾ ആണ് ഇരുന്നു കഴിക്കാൻ എല്ലാവർക്കും വട്ടത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ട് കഴിക്കാം നല്ലൊരു ഡൈനിങ്ങ് ടേബിൾ തന്നെയാണ് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ പെട്ടന്നൊന്നും സ്ക്രാച്ച് ആവില്ല നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് പിന്നെ പെട്ടന്നൊന്നും പൊട്ടുന്ന ഗ്ലാസല്ല ഇത് നമുക്കിപ്പോൾ കുട്ടികളെയൊക്കെ ഇതിന് മുകളില് കയറ്റി ഇരുത്തുക ഒക്കെ ചെയ്യാം അങ്ങനെ പെട്ടന്നൊന്നും പൊട്ടിപ്പോവില്ല നല്ല വെയിറ്റൊക്കെ താങ്ങുന്ന ഒരു സാധനമാണിത്